ഞാൻ ഇതിന് മുമ്പ് ഒരു ബൈക്കിങ്ങിൻ്റെ റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബൈക്കിങ്ങ് റാലി മാത്രമല്ല ഒരു ഓഫ് റോഡിങ് കൂടി ഉണ്ടായിരുന്നു ആദ്യം റാലി ആയിരുന്നു അതിന് ശേഷം ഒരു ഓഫ് റോഡിങ് ഇതും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ പങ്കെടുത്തത് കർണ്ണാടകത്തിൽ ചിക്ക്മംഗ്ലൂരൂ എന്നു പറയുന്ന സ്ഥലത്ത് വച്ചായിരുന്നു അത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസും കൂടി ആയിരുന്നു എൻ്റെ ഫ്രണ്ട് ആയിരുന്നു സജസ്റ്റ് ചെയ്തത് കാരണം അവൻ്റെ വണ്ടി തന്നെ തന്നായിരുന്നു അവൻ ആദ്യം ട്രാക്ടേർസിന് പോയിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ അവൻ്റെ വണ്ടി തന്നു അതും വച്ചിട്ട് പങ്കെടുത്തു ജയിക്കാനൊന്നും പറ്റിയില്ല എങ്കിലും അത്യാവശ്യം ഒരു ലീഡ് പിടിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ ഓഫ് റോഡൊക്കെ അത്യാവശ്യം ബൈക്കും കൊണ്ട് പോവുമായിരുന്നങ്കിലും ഞാൻ ഇതുവരെ ഓഫ് റോഡ് റേസിങ്ങിന് അങ്ങനെ പങ്കെടുത്തിട്ടില്ലായിരുന്നു പിന്നീട് എനിക്ക് അത് ഇഷ്ടമായിരുന്നു അങ്ങനെ പോകുമ്പോഴേക്ക് ഇടക്കൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടു പോകും ഓഫ് റോഡിങ്ങിന് പോകുമ്പോഴും അല്ലെങ്കിൽ ട്രിപ്പ് പോകുമ്പോഴും അങ്ങനെ എല്ലാമായിട്ട് കാരണം അവന് ഏറ്റവും നല്ലത് ഒരു പാർട്ട്നർ കൂടെ ഉണ്ടാവുന്നത് ആയിരുന്നു അവന് ഇഷ്ടം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നും ചെയ്തു കൊണ്ടിരുന്നത് കൂടുതലും ബാംഗ്ലൂർ പോയിട്ടുണ്ട് അവൻ്റെ കൂടെ തന്നെ അങ്ങനെ റൈസിങ്ങിൽ അധികം പങ്കെടുക്കാനൊന്നും നിന്നില്ല എങ്കിലും അവൻ്റെ കൂടെ പോവുകയും കൂടുതൽ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുകയും അങ്ങനെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്യുകയും അവര് എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് പ്രാക്ടീസ് നടത്തുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും അങ്ങനെ നിരവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ടേസിൽ മെയിനായിട്ട് നമ്മൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഫോർമാലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ സീറ്റിംങ് പൊസിഷൻ ഹാൻഡലിംഗ് പൊസിഷൻ അങ്ങനെ കുറേ നിരവധി പോയൻ്റുകൾ അവർ പറഞ്ഞു തരുന്നു പിന്നീട് അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പല ഇതിലും ബ്രേക്കിംഗ് പ്രോപ്പർ ബ്രേക്കിങ് എങ്ങനെയാണ് സഡൻ ബ്രേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ഒരു ഫോളോവിങ് സീക്രട്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് എനിക്ക് ലൈഫിലാണെങ്കിലും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ തന്നെ അറിയാം നിരവധി ആക്സിഡൻറ്റും മറ്റും നടക്കുന്നുണ്ട് ചിലരാണെങ്കിൽ അധികം പരിചയമില്ലാതെ വാഹനം എടുക്കുകയും നമ്മൾ ഇപ്പോൾ നമ്മൾ നേരെ പോറയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടു വന്നിട്ട് വണ്ടി കയറ്റുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ സഡൻ ബ്രേക്കിങ് ലോങ് ബ്രേക്കിങ് എല്ലാം ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ഇതിന് മുമ്പ് ലഭിച്ചിട്ടുള്ള ആ ഒരു നോളജ് വച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ ബ്രേക്കിങ് ചെയ്യുകയും വണ്ടി കൺട്രോൾ ചെയ്യുകയും മറ്റും എല്ലാം ചെയ്യുന്നത് കൊണ്ട് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്